ആ അതെ പറഞ്ഞോളൂ ആ ഓക്കേ ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നത് ഫോർ ഇൻടു ഫോർ ഉണ്ട് നോർമൽ ഉണ്ട് ആ ഓക്കേ അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇപ്പോൾ നമ്മുടേത് കൊടുക്കുന്നത് വെച്ചാൽ ഒരു ടെൻ ലാക്കിനേക്ക് മേലെ വരും എന്തായാലും ഫ്രഷ് എടുക്കുന്നത് അല്ലേ ആ ഇപ്പം കളർ ഇപ്പോൾ എല്ലാം വരുന്നുണ്ട് അപ്പോൾ ആ വൈറ്റ് ഉണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ആ എയർ ബാഗും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് റേറ്റ് ഇപ്പോൾ നമുക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം ഒരു ഒൻപത് പോയിൻറ്റ് ഒരു എട്ടിന് ഒക്കെ എടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുത്തരണെങ്കിൽ അങ്ങനെ തരാം അല്ലെങ്കിൽ ഷോറൂം വന്ന് പിക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയും ചെയ്യാം ഇപ്പോൾ വൈറ്റ് അല്ലേ വേണ്ടത് ആ വൈറ്റും ഉണ്ട് അതേപോലെന്നെ വേറെ കുറേ കളർ ഉണ്ട് മൾട്ടി കളർ അതേപോലെതന്നെ ബ്രൗണും കോഫി ബ്രൗൺ അങ്ങനത്തെ കുറേ കളർ ഉണ്ട് കേട്ടോ ആ ആ പിന്നെ ബാക്ക് ഓപ്പൺ അല്ലല്ലോ ആ ഇപ്പോൾ ഫ്രഷ് പീസ് വേണെങ്കിൽ അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ യൂസ്ഡ് ആണ് അതും ഉണ്ട് കേട്ടോ ഫ്രഷ് എടുക്കാനാണോ ആ അപ്പോൾ ഫ്രഷ് ആണെങ്കിൽ ഒരു ഒരു രണ്ട് വീക്കിന് അടുത്ത് വരും കാരണം ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇല്ല നമുക്ക് സ്റ്റോക്ക് കൊണ്ടുവരേണ്ടി വരും ആ അപ്പം നിങ്ങൾ നിങ്ങൾ ഇപ്പം റെഡി ക്യാഷ് എടുത്തിട്ട് ആണോ എടുക്കുന്നത് ആ അപ്പോൾ പിന്നെ കുഴപ്പമില്ല ലോണും കാര്യങ്ങൾ ഒന്നും വേണ്ടല്ലോ നിങ്ങളുടെ ഐ ഡി പ്രൂഫും കൊണ്ട് വന്നാൽ മതി അത് നമുക്ക് ബാക്കി രജിസ്ട്രേഷനും നമ്പർ നമ്പർ പ്ലേറ്റ് അടക്കം നമുക്ക് എടുക്കാം ഈ പ്രതിമാ ഇപ്പോൾ ഓൾമോസ്റ്റ് കാർ ഫോർ ഇൻടു ഫോർ വരുന്നുണ്ട് അതോ ജീപ്പ് അങ്ങനത്തെ വണ്ടി വരുന്നുണ്ട് ആ ആ താറും ഉണ്ട് ആ അത് ഇപ്പോൾ ഫുൾ ഓപ്ഷനോടെ വരുന്നത് അല്ല എല്ലാം ഫ്രഷ് പീസ് ആണ് വരുന്നത് പിന്നെ ഫ്രഷ് അല്ലാത്തതും ഉണ്ട് അത് പിന്നെ കുഴപ്പമില്ല നമുക്ക് ഒരു എന്താണ് പറയുക യൂസ്ഡ് കാർസിൻ്റെ ഒരു ഷോറൂമും ഉണ്ട് ആ ആ പിന്നെ അങ്ങനെ വരുന്നത് ഇപ്പം താർ ആയിട്ട് വരുന്നത് ഫോർ ഇൻടു ഫോർ ഉണ്ട് നോർമൽ ഉണ്ട് പുതിയതായിട്ട് ഇറങ്ങിയതും ഉണ്ട് കേട്ടോ ആ ഇപ്പോൾ നിങ്ങൾ ഇപ്പം അടുത്തുതന്നെ വരുവോ ആ ആ ആ ടു വീക്ക് കൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കാം വരുമ്പോൾ വിളിക്കാം ആ അപ്പോൾ നിങ്ങൾ ടൈം നോക്കിയിട്ട് വന്നാൽ മതി ആ പത്ത് മണി തൊട്ട് അഞ്ച് മണി വരെ ആണ് ഷോറൂം ഓപ്പൺ കേട്ടോ അപ്പം ആ ടൈമിന് വന്നാൽ മതി ആ അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങൾ ഒക്കെ കഴിച്ചിട്ട് എടുക്കാം ആ അപ്പം നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയുക ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സ്ആപ്പ് ചെയ്തുതരാം ഈ ഫോട്ടോസും കാര്യങ്ങൾ ഒക്കെ ഇട്ടുതരാം ആ ഓക്കേ